വൈദ്യുതിയുടെ ആവശ്യം ഇല്ലാത്ത അപകടങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാണോ എന്ന് ചോദിച്ചാൽ അതെ ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ചക്ക മാങ്ങയുടെ ഒക്കെ സീസണാണ് ആരും ഇരുമ്പിൻ്റെ തോട്ടി കൊണ്ട് വൈദ്യുതി ലൈൻറ്റെ ചോട്ടിൽ കൂടെ പോയി ചക്കയും മാങ്ങയും ഒക്കെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും വലിയ ഇപ്പം കണ്ട് വരുന്ന ഏറ്റവും വലിയ വിപത്ത് ഇതാണ് കാരണം എല്ലാവരും ചക്കയും മാങ്ങയും ഒക്കെ ഇടാൻ പോകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കില്ല ചക്ക മാങ്ങാ എന്നും പറഞ്ഞ് അങ്ങു പോകും ഒരിക്കലും തോട്ടി കയ്യിലിരിക്കുന്ന എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അത്കൊണ്ട് വൈദ്യുതിയുടെ ചോട്ടിൽ കൂടി പോകുമ്പോൾ ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിക്കാതെ പരമാവധി നമ്മൾ അല്ലേ കമ്പോ മരങ്ങളുടെ തോട്ടികളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചൂട് കൂടുന്ന സമയമാണ് നമ്മൾ ഒത്തിരി പേർ ഫാന് ഏ സി ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഫാനൊക്കെ കൊച്ച് കുഞ്ഞ് കുട്ടികളെക്കൊണ്ട് ഫാനൊന്നും ഇടീക്കുകയോ ഒന്നും ഉപയോഗിപ്പിക്കുകയോ ഒക്കെ ചെയ്യാതെ നമ്മൾ കാർന്നവന്മാർ തന്നെ അതൊക്കെ ചെയ്ത് കൊടുത്ത് പിള്ളേരെയൊക്കെ കഴിവിൻ്റെ പരമാവധി പിള്ളേരെ ഈ ഇലക്ട്രിക് സാധനങ്ങളുടെ ഇലക്ട്രിക്ക് ടെ അടുത്ത് നിന്ന് പിള്ളേരെ മാറ്റി നിർത്തണം ഇതൊക്കെയാണ് ഇപ്പം ഈ സമയത്ത് വൈദ്യുതീനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞഴിഞ്ഞാൽ എവിടെയെങ്കിലും വൈദ്യുതി കമ്പികളൊക്കെ പൊട്ടി വീഴുന്നത് സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് അപ്പം എവിടേലും ഒക്കെ കാറ്റടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരം വീണ് വൈദ്യുതി ലൈനൊക്ക പൊട്ടി പോകാറുണ്ട് അപ്പം മഴസമയത്തൊക്കെ അതാണ് കൂടുതലായും ശ്രദ്ധിക്കാനുള്ളത്